സ്റ്റാമ്പുകളായിക്കോട്ടെ നാണയങ്ങളായിക്കോട്ടെ കല്ലുകളായിക്കോട്ടെ പാറയായിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ നമ്മളത് ശേഖരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നമ്മള് രണ്ടായിരം അല്ലങ്കില് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളില് നമ്മളിത് ശേഖരിച്ചു എന്ന് വെക്കുക ഈ സാധനങ്ങള് ശേഖരിച്ച് ശേഖരിക്കുക എന്നതിൻ്റെ അർത്ഥം തന്നെ നമ്മളെന്താ ശേഖരിച്ച് സൂക്ഷിച്ച് വെക്കുക എന്നാണ് അപ്പോൾ നമുക്ക് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ശേഖരിച്ചു വച്ച അതേ സാധനത്തിൻ്റെ അപ്ഡേഷനായിരിക്കും തൊണ്ണൂറ്റൊന്നിലും തൊണ്ണൂറ്റി രണ്ടിലും വരിക ഇപ്പ നമ്മക്കിതിങ്ങനെ ശേഖരിച്ച് പോകും തോറും തൊണ്ണൂറില് ശേഖരിച്ച സാധനവും രണ്ടായിരത്തില് ശേഖരിച്ച സാധനവും തമ്മിലുള്ള അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് അപ്പം ഏറ്റവും ന്യുതനമായിട്ട് ആ ആധുനിക ലോകം എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നത് എങ്ങനെയാണ് മാറ്റങ്ങള് വരുന്നത് എന്ന് നമുക്ക് അപ്പം മനസിലാവും ഒര് പണ്ട് ഉണ്ടാക്കിയ സ്റ്റാമ്പിൻ്റെ ക്വാളിറ്റി ആയിരിക്കില്ല പത്തു വർഷം കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്ന സ്റ്റാമ്പ് ഏഹ് അതിൻ്റെ ഡിസൈന് ആയിരിക്കില്ല അപ്പോൾ എല്ലാ തരത്തിലും അത് പല തരത്തിലും മായും അപ്പം നാണയങ്ങളും അങ്ങനെ തന്നെയാണ് പണ്ട് നാണയങ്ങള് കൂടുതലുണ്ടായിരുന്നു ഇപ്പം നോട്ടുകളായി അപ്പം നമക്കിത് മനസ്സിലാക്കാനുള്ള ഏറ്റവും കൂടുതലൊരു ഉദാഹരണം നമ്മള മുന്നില് കാണിച്ചു തരുന്നതാണ് അതിൻ്റെ ലക്ഷ്യം